ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അവിടെ നന്നായി പഠിപ്പിക്കും എല്ലാ സബ്ജക്റ്റിനും ക്ലാസ്സ് ഉണ്ടെങ്കിലും എല്ലാവരും അത് രക്ഷിതാക്കൾ ആണെങ്കിൽ പുറത്ത് ട്യൂഷന് വിടും എല്ലാവരും പുറത്ത് അഡീഷണൽ ആയിട്ട് ട്യൂഷന് വിട്ടിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ട്യൂഷന് വിടുമ്പോൾ ആ കാര്യങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്ത പോലെയായി അതേപോലെ വീണ്ടും ഒന്നും കൂടി പഠിച്ച പോലെയാവും അതുകൊണ്ടു തന്നെ മാത്സ് ആണെങ്കിലും അതേപോലെ സയൻസ് പോലുള്ള സബ്ജക്ട് ഒക്കെ സ്കൂളിൽ പഠിപ്പിച്ചത് കൂടാണ്ട് നമ്മൾ ട്യൂഷനും കൂടി പോയി പഠിക്കുമ്പോൾ അതിന്റേതായ അറിവുകളും നമുക്ക് കിട്ടും അതേപോലെ നമുക്കിപ്പോൾ സ്കൂളിൽ ഇപ്പോൾ അധികം ചോദ്യം ഏതെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്യൂഷന് പോയി പറഞ്ഞ ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്കത് കറക്റ്റ് ആയി മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൂടെ നിന്ന് ക്ലിയർ ചെയ്തു തരാനും ഒക്കെ ട്യൂഷൻ പോയതുകൊണ്ട് ഉപകാരപ്പെടും ഇത് സ്കൂളിൽ ആണെങ്കിൽ എല്ലാ കുട്ടികൾ ഒരു പത്ത് അറുപത് പേരുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും വന്നിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാനും മാത്സ് ആണെങ്കിൽ പറഞ്ഞു തരാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ട്യൂഷൻ ആണെങ്കിൽ അത് വളരെ എളുപ്പം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും